പാടാനായി അങ്ങനെ ഞാൻ സമയമൊന്നും മാറ്റിവയ്ക്കാറില്ല എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവസരം കിട്ടിയാൽ ഞാൻ പള്ളിയിലൊക്കെ പാടാറുണ്ട് അല്ലാണ്ടങ്ങനെ പാടാറില്ല പാട്ട് പഠിക്കാനായിട്ട് ഞാന് പോയിട്ടില്ല ഇതുവരെ പാട്ട് എനിക്ക് ഇപ്പോള് ടി വിയിലൊക്കെ വരുന്ന പാട്ടാണെങ്കിലും ഫോണില്ക്കൂടെ കേൾക്കുന്ന പാട്ടാണെങ്കിലും അതൊക്കെ കേട്ടുകഴിയുമ്പോള് ഉള്ള ആ ഉണ്ടാകുന്നൊരു ഇഷ്ടം വെച്ചിട്ട് ഞാൻ ആ പാട്ട് ഡൗൺലോഡീതിരുന്നു കേൾക്കും അങ്ങനെ കേട്ട് കേട്ട് ഞാന് പാട്ട് പഠിക്കാറുണ്ട് അല്ലാണ്ട് ഞാനങ്ങനെ പാട്ട് പഠിക്കാറില്ല ഇപ്പോള് പാട്ട് പഠിക്കുന്നത് ഒത്തിരി കാര്യങ്ങള് നമ്മളെ ഹെൽപ്പെയ്യും നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സെയ്യാനാണെങ്കിലും നമുക്കൊരു ഒരു റിലീഫ് തരും നമ്മള് എത്ര നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും ചില പാട്ടുകള് കേട്ടുകഴിഞ്ഞാല് നമുക്ക് അത് ഭയങ്കര ആശ്വാസമായിരിക്കും അതുകൊണ്ടുതന്നെ എനിക്ക് പാട്ട് കേള്ക്കുന്നതും പാട്ട് കേട്ടുകൊണ്ട് അതിൻ്റെകൂടെ പാടുന്നതും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് പാട്ട് ശരിക്കും പറഞ്ഞാല് ഒരു നല്ല കാര്യമാണ് പാട്ട് പാടുന്നത് പാട്ട് പാടുന്നത് വഴി നമുക്ക് നമ്മുടെ സൗണ്ട് നല്ലതാക്കാൻ പറ്റു നമ്മള് എത്രത്തോളം നമ്മളത് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ കഴിവ് കൂടും ഇപ്പോള് പാട്ടുപാടാനാണെങ്കിലും നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട് പക്ഷെ അത് എല്ലാവർക്കുമൊന്നും യൂട്ട്ലൈസ്സീയ്യാൻ പറ്റണമെന്നില്ല എല്ലാവരും അത് കൂടുതലും അവർക്ക് അതിന് ഇപ്പോള് ചിലർക്കൊന്നും കോൺഫിഡൻസ് കാണത്തില്ല ചിലരുടെ സൗണ്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് അവര് പാടുന്നത് എനിക്ക് വെള്ളി വീണാല് അത് അവർക്ക് അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യം ആയോണ്ടുതന്നെ അവര് പാടാനായിട്ട് അത്ര ശ്രമിക്കത്തില്ല ഇപ്പോള് അവർക്ക് എത്ര പാടുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരിത് വെച്ചിട്ട് മിക്കപ്പോഴും പാടാൻ ശ്രമിക്കാറില്ല ഞാനും ഇടയ്ക്ക് അങ്ങനാണ് എനിക്കും അങ്ങനെ പാടാനൊന്നും അങ്ങനെ അധികം വേറൊരാളുടെ മുന്നില് പാടാനൊന്നും എനിക്ക് അങ്ങനെ തോന്നത്തില്ല പാടാനായിട്ട് സമയം എന്നുപറഞ്ഞാല് നമ്മള് കേൾക്കുന്ന നമ്മള് പാട്ട് കേള്ക്കുന്ന ആ ഒരു രണ്ട് മിനിറ്റാണെങ്കിലും ആ പാട്ട് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കത് ഒത്തിരി റിലീഫ് തരുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്